ആ ഹരികൃഷ്ണനല്ലേ ഇലക്ട്രീഷൻ ആ ഹരികൃഷ്ണാ പിന്നെ എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു ഇലക്ട്രിക്കിൻ്റെ വീട്ടിൽ പണിയുണ്ട് അത് പിന്നെ ഫാന് ഫാനൊന്നും ശരിക്ക് കറങ്ങുന്നില്ല ഭയങ്കര ചൂടല്ലേ ഇപ്പം ഫാനില്ലാണ്ട് കിടന്നുറങ്ങാൻ കഴിയുമോ അപ്പോൾ ഫാനിൻ്റെ കുറച്ച് പണിയുണ്ട് പിന്നെ നമ്മളെ ഇവിടുത്തെ വയറിങ്ങെല്ലാം പഴയതല്ലേ അതുകൊണ്ടുതന്നെ എല്ലാം കുറച്ച് കുറച്ചായിട്ട് പണിയുണ്ട് നിനക്കെപ്പോഴാണ് സമയമുണ്ടാവുക ഓ അപ്പോൾ നിനക്കിപ്പോഴൊന്നും വരാൻ കഴിയില്ലേ വർക്കെല്ലാം ചെയ്യണം കുറേയുണ്ട് പക്ഷെ പൈസേൻ്റെ വിഷമവും ഉണ്ടല്ലോ അപ്പോഴതുംകൂടി നോക്കണ്ടേ എനിക്കിപ്പം അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫാനിൻ്റെതാണ് എല്ലാം ആവശ്യം തന്നെ എന്നാലും ഫാനാണല്ലാ ഈ ചൂടാവുമ്പോൾ നമ്മൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഫാനില്ലാണ്ടാവില്ലല്ലോ അപ്പോൾ നീ ഫാനിൻ്റെയെല്ലാം ഒന്ന് നോക്ക് മറ്റേ പണിയെല്ലാം വന്ന് നോക്കിയതിന് ശേഷം ഞാൻ പറയാം അപ്പോൾ ആരിപ്പേടെയാണ് നിനക്ക് പണി ആ പണിയെല്ലാം ഉണ്ടോ ഇപ്പോൾ ആ ഒരു പുതിയ വീട് എടുക്കുന്നതല്ലേ അല്ലേ എന്നാൽ പിന്നെ നീ വന്നിട്ടാകുമ്പോൾ നോക്ക് എന്തെല്ലാമാണെന്ന് എന്നിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം എത്ര പൈസ ആവുമെന്നെല്ലാം നിനക്കറിയുമല്ലോ എല്ലാം നോക്കിയാൽ സാധനത്തിൻ്റെയെല്ലാം വില അറിയാമല്ലോ ഉം ആ ശരി ഉം